ആ സാങ്കേതിക വിദ്യയിലെ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം സാങ്കേതിക വിദ്യ വന്നതിൽ കൂടുതൽ നമുക്കറിയാം ഇന്നിപ്പോ കല്യാണവാണെങ്കിലും മരണവണെങ്കിലൊക്കെ പണ്ടൊക്കെ നമ്മൾ ചെന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് വീട്ടിനകത്തിരുന്ന് തന്നെ നമുക്കെല്ലാവരെയും വിളിക്കാം ഇപ്പം ആരും സഹായത്തിനില്ലെങ്കിൽ പോലും നമുക്കൊരു കല്ല്യാണം വന്നു ആൾ കുറവുള്ള വീടാണെങ്കിൽ പോയി വിളിക്കാനാരുമില്ലെങ്കിൽ നമുക്ക് ഫോൺ വിളിച്ച് ഇരുന്ന് തന്നെ എല്ലാവരെയും അറിയാം കാരണം പ്രത്യേകിച്ചും അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ

പിന്നെ ഇപ്പം നമുക്ക് സ് ഫോണ് ഇൻ്റെർനെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്മാർട്ട് ഫോണോക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പോയി അല്ലെങ്കിൽ മക്കളൊക്കെ എവിടെയെങ്കിലും പഠിക്കാനൊക്കെ പോയിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കവരുമായിട്ടു വിളിക്കാം സംസാരിക്കാം അവരെ കാണാം അപ്പോൾ ദിവസവും നമുക്കവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം പ്രായമായവരാണെങ്കിൽ പോലും അല്ലേ മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഇ സ്മാർട്ട് ഫോൺ ഇൻ്റെർനെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ല കാര്യമായിട്ട് തന്നാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഇതുകൊണ്ട് പിന്നെ നമുക്ക് അറിയാം വീട്ടിൽ ഇപ്പം പണ്ടൊക്കെ നമ്മൾ സിനിമായ്ക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ നേരത്തെ വീട്ടിന്ന് പോയി നമ്മൾ ടി ക്യൂ നിന്ന് ടിക്കറ്റക്കൈ എടുക്കണമായിരുന്നു ഇപ്പം ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏത് തരത്തിലുള്ള ടിക്കറ്റുകളും നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യാം പറ്റും സിനിമ ടിക്കറ്റ് അയക്കാം നമുക്ക് ബസ്സിൻ്റെതായിരിക്കാം പിന്നെ പ്ലെയിൻ്റെതായിരിക്കാം ട്രെയിന്റേതായിരിക്കാം അങ്ങനെ എ എന്തിന് വേണ്ടിയുള്ള ടിക്കറ്റുകളാണേലും നമുക്കിപ്പം വീട്ടിലിരുന്ന് തന്നെ നമുക്കത് ബുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് നമുക്ക് ഒഴിവായി അത് പോലെ തന്നെ ഹോട്ടലുകളിലാണേൽ നമുക്ക് ഇപ്പോൾ നമ്മളെവിടെങ്കിലും ടൂറേ കാര്യങ്ങളൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു സേഫ് ആയിട്ട് തന്നാണ് തോന്നുന്നത് കാരണം നമ്മുടെ വീട്ടുകാരുടെ അഭിപ്രായം ചോദിച്ച് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഏറ്റവും നല്ലത് നോക്കാം അപ്പം ഹോട്ടൽനകത്തുള്ള നമ്മുടെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റെർനെറ്റിൽ കാണാൻ പറ്റും

നമുക്ക് പേടിക്കാതെയൊക്കെ ഇതുവായിട്ടൊക്കെ പോകാം പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ അല്ല നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്കത് ഓഡറ് ചെയ്താൽ മതിയായിരിക്കാം സാധനങ്ങൾ വാങ്ങിക്കുത് നമ്മുടെ വീട്ടിൽ കൊണ്ട് വന്ന് തരും അപ്പോൾ പിന്നെ ഭക്ഷണമാണെങ്കിലും എന്തുവാണെങ്കിലും ഒരു കരണ്ട് ചാർജാണെങ്കിൽ അല്ലേൽ ഒരു ഫോൺ ബില്ല് ഫോൺ റീചാർജിങ് ഇതെല്ലാം നമുക്ക് വീട്ടിൽ ഇരുന്നൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്